ഞങ്ങളുടെ സ്ഥലം സന്ദർശിക്കുമ്പോൾ വിനോദസഞ്ചാരികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഒന്ന് കാലാവസ്ഥയുണ്ട് കാരണം കാലാവസ്ഥയെന്ന് പറയുന്നത് ഇതെല്ലാം മലമുകളാണ് മലമുകളിൽ എപ്പോൾ വേണമെങ്കിലും കാലാവസ്ഥ വ്യതിയാനപ്പെടുന്നതാണ് അതേപോലെ തന്നെ ഉ ചിലപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാകും അതൊക്കെ നമ്മുടെ പ്രദേശത്തേക്ക് വരുന്ന വിനോദസഞ്ചാരികളെ പ്രതികൂലമായി ബാധിക്കുന്ന വെല്ലുവിളികളാണ് അതേപോലെ തന്നെയാണ് ഗതാഗതം ഗതാഗത സൗകര്യമെന്ന് പറഞ്ഞാൽ തീരെ മെച്ചമല്ലാത്ത റോഡുകളാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകാൻ വേണ്ടി ഉള്ളത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ ഗതാഗതമെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഒട്ടും തന്നെ പോകാൻ കഴിയില്ല നമുക്ക് നടന്ന് മാത്രം പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ സ്ഥലങ്ങളിലെല്ലാം പോകാനായിട്ട് പിന്നെ എന്ന് പറയുന്നത് നമുക്കവിടെ ചെന്നാൽ നല്ല ഫക്ഷണം ഫക്ഷണത്തിന് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള ഫുഡ്ഡായിരിക്കും കിട്ടുന്നത് ആ ക്വാളിറ്റി ഇല്ലാത്ത ഫുഡും നും നമ്മൾ ഒരുപാട് കാശ് കൊടുക്കേണ്ടുന്ന അതായത് പ്രൈസ് ഒരുപാട് കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരവസ്ഥയും കൂടിയാണ് ഉള്ളത് പിന്നെ താമസത്തിന് നല്ല സ്ഥലങ്ങളോ റിസോർട്ടുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥയും കൂടിയാണ് ഇതൊക്കെ മാറ്റുകയാണെങ്കിൽ അതേപോലെ ആ സ്ഥലങ്ങളിൽ നമ്മൾ പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ ഇതെല്ലാം നമ്മൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിനോദസഞ്ചാരികളെ നമ്മുടെ പ്രദേശത്തേക്ക് ആകർഷിക്കാൻ കഴിയുന്നതാണ് ഒരുപാട് നമ്മുടെ ടൂറിസം മേഖല ഒരുപാട് വികസിക്കുന്നതാണ് നമുക്ക് അവിടെ പോകാനായിട്ട് വരുന്ന ഗതാഗത സൗകര്യം നല്ല രീതിയിൽ മാറ്റി നല്ല ഹോട്ടലുകളും അതേപോലെ താമസത്തിന് ആവശ്യമായ വില്ലകളും ഒക്കെ പണിയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ടു നമ്മുടെ പ്ര പ്രദേശത്തെ ടൂറിസ്റ്റ് കേന്ദ്രമായി കൊണ്ട് പോകാവുന്നതാണ്